ഹലോ സിനേറിയോ ഗ്യാസ് ഏജൻസിയല്ലേ ഞാൻ നിങ്ങളുടെ ഒരു ഉപഭോക്താവാണ് ഇപ്പം നിങ്ങളുടെ ഒരു പുതിയ ബുക്കിംഗ് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം നിങ്ങളുടെ ലോഞ്ച് ചെയ്തല്ലോ അത് വളരെ ഹെല്പ് ഹെൽപ്ഫുള്ളാണ് ഇപ്പം പെട്ടെന്നൊക്കെ ഞങ്ങൾക്ക് നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഗ്യാസൊക്കെ പെട്ടെന്ന് തീരുന്നത് പിന്നെ അത് ബുക്ക് ചെയ്യാനും ബുദ്ധിമുട്ടാണ് ബുക്ക് ചെയ്തിട്ട് കിട്ടാനും വളരെയധികം ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് ഒരു ഒരു ടൈം ലാഗ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ഒരു പുതിയ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം കൊണ്ടുവന്നത് വളരെ ഹെൽപ്ഫുള്ള് ആണ് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാനും ഗ്യാസ് പെട്ടെന്ന് തന്നെ ലഭിക്കാനും അത് സഹായിച്ചിട്ടുണ്ട് ആ അപ്പം നിങ്ങളുടെ ഒരു പുതിയൊരു ലോഞ്ചിങ്ങിന് ആദ്യം തന്നെ ഒരു അപ്രിസിയേഷൻ ആൻഡ് താങ്ക് യൂ താങ്ക് യൂ ഈ ഒരു മുന്നേറ്റത്തിന് താങ്ക് യൂ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് ഉപകാരമായിട്ടുണ്ടത് വീട്ടമ്മമാർക്കെല്ലാം തന്നെ കാരണം അത്രയും ഞങ്ങളിപ്പോൾ പെട്ടെന്നെല്ലാം അടുക്കളയിൽ ഗ്യാസ് തീരുമ്പോൾ ഫോണിലൊന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല ബുക്ക് ചെയ്യാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് ഏജൻസീടെ അടുത്ത് നമ്മൾ സ്വന്തം വെഹിക്കിളായിട്ട് പോയിട്ട് ഗ്യാസ് അവിടുന്ന് ബുക്ക് ചെയ്ത് എടുത്ത് കൊണ്ട് വരേണ്ട അവസ്ഥയൊക്കെയാണ് അതൊക്കെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു അവസ്ഥയിൽ നിങ്ങളിങ്ങനെയൊരു ഇങ്ങനെയൊരു ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം വെച്ചത് വളരെയധികം ഉപകാരപ്രദമാണ് എല്ലാ ലോകത്തിലെല്ലാ അമ്മമാർക്കും അതൊരു ഉപകാരം തന്നെയാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മമാർക്കും സ്ത്രീകൾക്കായാലും വളരെയധികം ഹെൽപ്ഫുള്ള് ആണ് അപ്പം അതിനൊരു നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈയൊരു കോള് വിളിച്ചത് അപ്പം നിങ്ങളുടെ സിനേറിയോ കമ്പനിക്കും ഈയൊരു ഈയൊരു ഐഡിയ മുന്നോട്ട് വെച്ചവർക്കും എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കാനാണ് വിളിച്ചത്